ഇപ്പം ആണേൽ ഇപ്പം പലരും കോഴി വളർത്തലും താറാവ് വളർത്തലും ഒരു മോശമായ ജോലി രീതിയാണിന്ന് കണ്ട് വരുന്നത് പണ്ടുള്ളവരാണ് ഈ കോഴി വളർത്തലും താറാവ് വളർത്തലും കൂടുതൽ മുൻതൂക്കം കൊടുത്തത് ഇപ്പോൾ ഉള്ളവര് അങ്ങനെ ആരും താളാ താറാവ് വളർത്താനോ കോഴി വളർത്താനോ ഒന്നും ആരും എന്താ ഇറങ്ങി മുന്നിട്ട് നിൽക്കുന്നില്ല മുന്നിട്ട് നിൽക്കുന്നവർക്കാണ് അതിൽനിന്നും പല ആദായങ്ങളും ലഭിക്കുന്നും ഒക്കെ ഉണ്ട് പിന്നീട് സസ്യാഹാരം ഇതിന് ഈ ബിസിനസിനെ ഏറ്റവും അധികം ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ തോന്നുന്നത് കാര്യം ഈ സസ്യങ്ങൾ തിന്ന് വളരുന്ന കോഴികൾക്കൊക്കെ പല രോഗങ്ങളും ഇല്ലാ അത് കാര്യം നമ്മുടെ പ്രകൃതി കൂടുതലും മരുന്നുകള് ഒത്തിരി മരുന്നുകളൊക്കെയുണ്ട് അപ്പം ഈ മരുന്നുകള് കഴിച്ച് വളരുന്ന കോഴിക്കാണേല് അങ്ങനെ വലിയ രോഗം ഇപ്പം കൂടിനകത്ത് തന്നെ അടച്ച് വളർത്തുന്ന കോഴികൾക്കാണ് കൂടുതലും രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇപ്പം ഇപ്പം പിന്നീട് പറയാമെന്ന് വെച്ച് ഇപ്പം ആരും അങ്ങനെ ഇത് ഈ ബിസിനസ്സുവായിട്ട് മുൻതൂക്കം നിൽക്കുന്നില്ല ഈ കോഴി വളർത്തലും താളാ താറാവ് വളർത്താനും ഒന്നും ആരും വലിയ മുൻതൂക്കമൊന്നും കൊടുക്കുന്നില്ല സമീപം ഉള്ള വർഷങ്ങളിൽ കോഴി വളർത്തലിനും താറാവ് വളർത്തലും വളർത്തുന്നവർക്ക് പല ലാഭം ലഭിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പം ആരും അതിന് ഇറങ്ങാറില്ല സസ്യാഹാരം ഈ ബിസിനസ്സിന് വളരെ രീതിയില് ബാധിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് പറയാനുള്ളത് ഇപ്പം നമ്മുടെ പ്രകൃതിയിൽ ഉള്ള പനികൂർക്ക ഇല വേപ്പില ഇതൊക്കെ തിന്ന് ചില കോഴികൾ കൊത്തി പെറുക്കി തിന്ന് അവർക്ക് പല പ്രതിരോധശേഷി അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അല്ലാതെ നമ്മള് കൊടുക്കുന്ന ഫുഡല്ലാതെ തന്നെ ഇതിങ്ങൾക്ക് പല രീതിയിൽ ഉള്ള ഇത് ലഭിക്കുന്നൊക്കെയൊണ്ട് അപ്പം ഈ ഈ തുറന്ന് വിട്ട് ഭക്ഷണം തിന്നുന്ന കോഴികൾളും അടച്ച് പൂട്ടുന്ന വളർത്തുന്ന കോഴികൾളും കൂടുതല് പ്രതിരോധശേഷി ഉള്ളതും നമ്മൾ തുറന്ന് വിട്ട് വളർത്തുന്ന കോഴികൾക്ക് തന്നെയാണ്